ആ അതെ ഇവിടെ വെളിച്ചെണ്ണ കൊടുക്കുന്ന സ്ഥലം അല്ലെ ആ എനിക്ക് ഒരു ഒര് എനിക്ക് ഒര് ലിറ്ററ് വെളിച്ചെണ്ണ വേണമായിരുന്നു ആ ഇവിടെ എങ്ങനെ ആണ് സംഭവം ശുദ്ധമായിട്ട് ഉള്ള വെളിച്ചെണ്ണ ആണോ

ആട്ടണത് ആണ് ആ അപ്പം ഇവിടുന്നു തന്നെ ആട്ടുന്നത് ആണ് അല്ലെ ആ നമുക്ക് ഓക്കെ ഇത് ഇപ്പം നമ്മക്ക് ബേക്കറി ഐറ്റംസിന് ഒക്ക ഉപയോഗിക്കാമല്ലൊ ഫുഡ്ഡ് ഐറ്റംസിന് ഒക്കെ ഉപയോഗിക്കാം അല്ലെ നോർമൽ ആയിട്ട് ഉപയോഗിക്കാം അല്ലെ അപ്പം കുട്ടികൾക്ക് ഒക്കെ ചെറിയ കുട്ടികൾക്ക് ഒക്കെ ഇത് ഉപയോഗിക്കാമല്ലൊ അല്ലെ ഉപയോഗിക്കാം ഓ ഓ ഓ കൊടുക്കാം അല്ലെ നല്ല എണ്ണ ആണ് അല്ലെ ആ ആ ഓക്കെ ഇത് എത്ര ദിവസം കേട് വരാണ്ട് നിൽക്കും ചുക്ക് അടിക്കുമോ അങ്ങനെ ചുക്ക് അടിക്കുവോ അങ്ങനെ എന്തൊക്കെ ചെയ്യുമോ

ആണ് അല്ലെ ആ ഓക്കെ ഉണ്ടോ ആ അത് കടയിൽ ഒക്കെ അവൈലബിൾ ആണോ അത് നിങ്ങള് കൊടുക്കുന്നുണ്ടോ കടയിൽ ഒക്കെ ആണ് അല്ലെ കടയിൽ കൊടുക്കുന്നില്ല അല്ലെ

ഓ ഓ ഓ ആണോ അങ്ങനെ അല്ലെ ലൂസ് ആയി കൊടുക്കുക ആ ആ എനിക്ക് കുറച്ച് ആണോ എനിക്ക് കുറച്ച് ഒരു ഒരു പത്ത് ലിറ്റർ എണ്ണ എണ്ണ വേണമായിരുന്നു കാരണം എനിക്ക് പുറത്ത് പോകുമ്പോൾ അവിടെ കൊണ്ട് പോവാൻ ആണ് ഗൾഫിലേക്ക് കയറ്റി അയയ്ക്കാൻ ആയിരുന്നു ആ ആ അതെ അതെ പുറത്തേക്ക് കൊടുക്കാൻ ആണ് ഒരു ഒര് പത്ത് ലിറ്റർ എണ്ണ വേണ്ട വരും ഇവിടെ ഇപ്പം വേണ്ട ഇപ്പം ഒര് ലിറ്ററ് മതി ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഒര് ലിറ്ററ് മതി പിന്നെ എനിക്ക് ഒരു ഒരു പത്ത് ലിറ്ററ് വേണം ഇതിൻ്റ റേറ്റ് ഒക്കെ എങ്ങനെയാണ് കൊടുക്കുന്നത് അത് കടം ആയിട്ട് ഉള്ള റേറ്റ് ആണോ അതോ എങ്ങനെ ആണ് ആണോ കുറവ് ആണ് അല്ലെ ആണ് ആണ് ആണോ അപ്പോൾ എനിക്ക് ഒര് പത്ത് ലിറ്ററ് എണ്ണ വേണ്ട വരും ആ അതെ അതെ അത് ഇപ്പം വേണ്ട ഞാൻ ഞാൻ അത് പറയാം എനിക്ക് ഇപ്പം ഒര് ലിറ്ററ് മതി ഒന്ന് യൂസ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോകാന് ഒരു ഒരു മാസം കൂടി സമയം ഉണ്ട് അങ്ങോട്ട് പോകാൻ ആയിട്ട് അതിന് ഉള്ളില് മതി പത്ത് ലിറ്ററ് ശരി ഞാന് അറിയിക്കാം കെട്ടോ ഞാൻ വാങ്ങുന്ന സമയത്ത് ഏ ഇന്ന് നിങ്ങള് ഇപ്പം ഒര് ലിറ്ററ് എണ്ണ എടുത്തോളൂ ആ ശരി